ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഉള്ള ഫുഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ സം ടൈംസ് ഇപ്പോഴത്തെ ഞാൻ കഴിക്കുന്ന ഫുഡും അപ്പോഴത്തൊരു ഫുഡും തമ്മിലുള്ള ഇതെന്നു പറയുമ്പോൾ ഞാൻ ആ ഫുഡിനെ ഭയങ്കരമായിട്ട് മിസ്സ് ചെയ്യുന്നുണ്ട് സം ഫുഡ്സ് മാത്രം മേ ബി ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയമൊക്ക ഈ കറക്റ്റൊരു പന്ത്രണ്ടര ഒരു മണിയൊക്ക ആകുമ്പോൾ ബെല്ലടിക്കും സോ ആ സമയം ഇങ്ങനെ ഫ്രണ്ട്സൊക്കെ ചോറ്റു പാത്രമൊക്കെ എടുത്ത് പ്ലേറ്റൊക്കെ എടുത്തിട്ട് ഇങ്ങനെപോയി ക്യൂ നിന്ന് ഫുഡൊക്കെ മേടിച്ച് ഒരുമിച്ചിരുന്ന് കഴിച്ച് ആ ഒരു ഇതൊക്കെ ഒരു ഭയങ്കര രസമായിട്ടുള്ളൊരു കാര്യങ്ങളായിരുന്നു സോ മേ ബി ഒരു ഫ്രണ്ട്സുമായിട്ട് നമ്മൾ ഇങ്ങനെ വട്ടത്തിലിരുന്ന് ഫുഡൊക്കെ കഴിക്കുമ്പോൾ എല്ലാം മാക്സിമം എല്ലാവരും എഞ്ചോയ് ചെയ്ത് ഫുഡൊക്കെ കഴിക്കും നല്ലൊരു ഫുഡാണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും വർത്തമാനമൊക്ക പറഞ്ഞ് ഒക്കെ ഇരുന്നു കഴിക്കുന്ന അതൊക്കെ പണ്ടത്തെ കാലത്തിൽ സെറ്റപ്പൊക്കെ ആയിരുന്നു പക്ഷേ എൻ്റെയൊരു ഞാൻ പഠിച്ച സ്കൂളിൽ പഠിച്ച സമയം എന്നു പറയുമ്പോൾ സ്കൂൾ ഫുഡ് കുറച്ചുപേരെ മേടിക്കത്തുള്ളൂ ഒരു ക്ലാസ്സിൽ ഒരു മുപ്പത് നാല്പത് പേരുണ്ടെങ്കിൽ അതിലൊരു പത്തുപേർ അല്ലെങ്കിൽ ഒരു പതിനഞ്ചുപേർ മാത്രമേ സ്കൂൾ ഫുഡ് ബാലൻസ് എല്ലാവരും വീട്ടിൽ നിന്ന് ഫുഡ് കൊണ്ടുവരുമായിരുന്നു പിന്നെ മാക്സിമം ഞങ്ങളുടെ സ്കൂളിലൊക്കെ ഞാൻ പഠിച്ച സമയമൊക്കെ സ്കൂളിൽ നിന്ന് ഫുഡ് മേടിക്കുന്ന എല്ലാവർക്കും അരി കിട്ടുമായിരുന്നു ഗവൺമെൻ്റിൽ നിന്ന് ഒരു മാസം ഒരു അഞ്ചു കിലോ വെച്ചിട്ട് അരിയൊക്കെ കിട്ടുമായിരുന്നു സോ അത് അതിനുവേണ്ടിതന്നെ കുറേ പേരൊക്കെ അതു കഴിഞ്ഞിട്ട് ഫുഡ് സ്കൂൾ ഫുഡ് കഴിക്കാമെന്നു പറഞ്ഞിട്ട് സ്കൂൾ ഫുഡൊക്കെ മേടിച്ച് കഴിക്കാനൊക്കെ തുടങ്ങി ഞങ്ങൾ സ്കൂളിൽ ഫുഡിനെക്കുറിച്ച് പറഞ്ഞാൽ എൻ്റെ മൂന്ന് ഫുഡ് ഒന്ന് ചോറ് ഒരു ചാറുകറി എന്തെങ്കിലും പിന്നെ ഒരു കൂട്ടാൻ എന്തെങ്കിലും ഒരു സംഭവമുണ്ടാവും ഇതാണ് ഞങ്ങൾക്ക് തന്ന ഫുഡ് ഈ ഒരു ഫുഡിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ശരിക്കും പറഞ്ഞാൽ ചില ദിവസങ്ങളൊക്കെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും പെട്ടെന്ന് നമുക്കിഷ്ടപ്പെടും വിശപ്പ് കൊണ്ടായിരിക്കാം മേ ബി പക്ഷേ സം ടൈംസ് ഫുഡ്സൊക്കെ നല്ലതായിരിക്കും പക്ഷേ സം ടൈംസ് ഫുഡ്സൊക്കെ ഈ വെള്ളത്തിൽ പൊടിയൊക്കെ ഇട്ട് നമുക്ക് തരുന്നൊരു ഫീലായിരുന്നു ആ ഫുഡ് അങ്ങനത്തെ ഫുഡൊക്കെ കഴിച്ചിട്ട് എനിക്കും എൻ്റെ കൂട്ടുകാരന്മാർക്ക് ഛർദ്ദിക്കാനും വയറുവേദനയൊക്കെ എടുത്ത് ഫുഡ് ഇൻഫെക്ഷനൊക്കെ ആയി ഞങ്ങൾ ഹോസ്പിറ്റലിലൊക്കെ കിടന്നിട്ടുണ്ട് പിന്നെ മാക്സിമം ഫുഡിലൊക്കെ ഈ പുഴു അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിട്ടും ഉണ്ട് എൻ്റെ സ്കൂൾ ലൈഫിൽ ഞാൻ പഠിച്ച സ്കൂളിലുള്ള ഫുഡിനെക്കുറിച്ച് ആ ഒരു ഫുഡൊക്കെ ശരിക്കും സ്കൂളിലൊക്കെ കൊടുക്കുന്നത് അവർ പറയും മീൻസ് ഈ അരിയിൽ നിന്നു വന്നതായിരിക്കും അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ നല്ല ഡയലോഗൊക്കെ അടിക്കും പക്ഷേ എൻ്റെയൊരു ഒപ്പീനിയനിലാണെങ്കിൽ ഈ ഇത്രയും പിള്ളാർക്കുവേണ്ടി ഉണ്ടാക്കുന്ന ഫുഡിൽ അവർ കുറച്ചെങ്കിലും ഹൈജീനിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും ചെയ്യണം പക്ഷേ ഹൈജീനിക്കെന്നു പറയുന്ന സാധനം അവിടെയില്ല ജസ്റ്റ് അരി എടുക്കുന്നു ഒരു പാത്രത്തിലിട്ട് ഒരു പ്രാവശ്യം കഴുകുന്നു ജസ്റ്റ് അത് കൊണ്ടുപോയി വേവിക്കുന്നു അങ്ങനെ ഉള്ളു ഒരു ഹൈജീനിക്കില്ല പ്രോപ്പറായിട്ട് ഒരു ഗ്ലൗസോ അല്ലെങ്കിൽ ഒരു ഹെയർ സംഭവം എന്നൊക്കെ വെച്ചിട്ട് ഫുഡ് ഉണ്ടാക്കത്തില്ല അവരുടെ ഇഷ്ടത്തിൽ ചെയ്യും അതിൽ കുറേ പിന്നെ വെജിറ്റബിൾസൊക്കെ പറയുമ്പോൾ എല്ലാ വെജിറ്റബിൾസും മാക്സിമം എല്ലാ വെജിറ്റബിൾസും ഇതിൽ കാണും അതിൻ്റെ പേരാണ് സാമ്പാർ സാമ്പാറിൽ ചേർത്ത് ഈ ഇതൊക്കെ ചേർത്തു കഴിഞ്ഞാൽ ടേസ്റ്റ് ഉണ്ടാകത്തില്ല എന്നൊക്ക പറയാം പക്ഷേ എല്ലാ സാധനങ്ങളും ഞങ്ങളുടെ ഇതിലുണ്ടാവും പിന്നെ ഫുഡൊക്കെയെന്നു പറയുമ്പോൾ പിന്നെ മാക്സിമം സ്കൂൾ ഫുഡെന്നു പറയുമ്പോൾ ഈ ക്രിസ്മസ് അല്ലെങ്കിൽ ഓണത്തിനൊക്കെ വരുന്ന സദ്യയൊക്കെ ഭയങ്കര രസമായിരിക്കും അല്ലാണ്ട് ഒരിക്കലും ഞാൻ പറയത്തില്ല എൻ്റെ സ്കൂൾ ലൈഫ് ഫുഡ് നല്ലതാണെന്ന് മോസ്റ്റ് ഓഫ് ഫുഡ്സിൽ ഞാൻ പുഴുവിനെ കണ്ടിട്ടുണ്ട് ടേസ്റ്റുണ്ടാവത്തില്ല ഉപ്പുണ്ടാകത്തില്ല എരിവുണ്ടാകത്തില്ല ഇങ്ങനത്തെയൊരു ഫുഡായിരുന്നു എൻ്റെ സ്കൂൾ ലൈഫ് ഫുഡ് ഈ ഫുഡ് കഴിച്ചിട്ട് കുറേ പേർക്ക് ഇൻഫെക്ഷൻസ് വന്നിട്ടുണ്ട് വയറിളക്കം പിടിച്ചിട്ടുണ്ട് ഛർദ്ദിക്കാൻ വന്നിട്ടുണ്ട് സോ ഐ ആം സോ ആ ടൈമിൽ നമ്മളവിടെ പറഞ്ഞിരുന്നെങ്കിൽ ഇപ്പോൾ ഞാൻ ഈ ഒരു സ്റ്റേജിൽ എത്തുമോയെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു എന്നാലും എനിക്കതിനെക്കുറിച്ച് നല്ലൊരു ഒപ്പീനിയൻ അല്ല